അതെ ആ സ്കൂൾ ബാഗ് ഉണ്ട് പിന്നെ പിന്നെ ഹാൻഡ് ബാഗുകളുണ്ട് ചെറിയ ബാഗുകളുണ്ട് എല്ലാം ഉണ്ട്

എല്ലാ കമ്പനിയുടേയും ഡി സി എല്ല് സ്കൂബീയുടെ ടോം ആൻഡ് ജെറിയൊന്നും ഇല്ല അത് വേണമെങ്കിൽ വരുത്തി തരാം അതായിരിക്കും അത് അത് ഒരാഴ്ച്ചക്കകം മതിയാകുമോ ഞാൻ വേറെയെവിടെന്നെങ്കിലും വേറെ എന്തെങ്കിലും കടയിൽ ഷോപ്പിൽ നിന്ന് സംഘടിപ്പിച്ചു തരാം രണ്ട് ദിവസത്തിനകം രണ്ട് ദിവസത്തിനകം ആ ന്ന് ന്ന് നിറം പറഞ്ഞോ

അത് തന്നെ വരുത്തി തരാം എത്ര രൂപയുടേതാണ് വേണ്ടിയത്

ആ ആയിക്കോട്ടെ ആ അതിൽ കൂടിയത് വേണോ ആ ടോം ആൻഡ് ജെറിയുടെ ആൻഡ് ജെറിയുടെ

മ്മ് ബാഗ് മാത്രം മതിയോ ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലൊന്നും വേണ്ടേ ആ അ ഇവിടുന്ന് വേണോ ഇവിടുന്ന് തന്നെ വേണോ ആ ടിഫിൻ ടിഫിൻ ബോക്സ് വേണോ ടിഫിൻ ബോക്സ് ആ ആ

ഇതൊന്നും ഫ്രീ അല്ല എക്സ്ട്രാ പൈസ വേണം കേട്ടോ ആ ഗോഡൗണിൽ നോക്കിയിട്ട് ആ വോ ഗോ ഗോഡൗണിലുണ്ടോ എന്ന് നോക്കട്ടെ ടോം ആൻഡ് ജെറിയുടെ ബാഗ് നാളെ വൈകുന്നേരം വന്നാൽ മതി താങ്ക്യൂ ഒക്കെ